ഹലോ ഹലോ മാഡം എൻ്റെ പേര് അഞ്ചൂ എന്നാണ് എനിക്ക് പുതിയത് ആയിട്ട് നിങ്ങളുടെ കോച്ചിംഗ് സെൻ്ററില് ഫുട്ബോൾ കോച്ചിംഗിന് വേണ്ടീട്ട് ചേരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഞാൻ ചേരണ്ടതെന്ന് ഒന്ന് പറഞ്ഞ് തരാനാണ് വിളിച്ചത് എത്ര മണിക്കാണ് ഞാൻ പഠിക്കുന്നതാ ആ ആ ഞാൻ സ്കൂളിൽ പഠിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ പത്താം ക്ലാസ്സ് കഴിഞ്ഞു പ്ലസ് വൺ ട്രൈ ചെയ്തോണ്ട് നിക്കുവാണ് അതിന് അതിൽ എത്തിയിട്ട് ആ ആ അതെ അപ്പോൾ എങ്ങനെയാണ് സമയമെന്ന് ഒക്കെ അറിയാൻ വേണ്ടീട്ട് ആണ് സാറിനെ വിളിച്ചത് ഞാൻ വിളിച്ചത്

ആ ആറ് മണി മുതൽ ആ അതെയോ അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാന്ന് ഫീസ് എത്ര പൈസയാന്ന് രണ്ട് മണിക്കൂറ് ആണല്ലേ എടുക്കുന്നത് കോച്ചിംഗ് രണ്ട് മണിക്കൂർ അല്ലേ സാർ

ശരി ശരി കുറെ കുട്ടികൾ

ശരി അപ്പോൾ ഞാൻ അടുത്താഴ്ച നവംബർ പതിനഞ്ചാം തീയ്യതി മുതൽ ഞാൻ അവിടെ ഫുട്ബോൾ കോച്ചിംഗിന് വേണ്ടി വരും ഒന്ന് രജിസ്റ്ററ് ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ രാവിലത്തെ ബാച്ചിൽ ആണ് ഞാൻ വരുന്നത് ആ ശരി ശരി ആ ഞാൻ എന്നാൽ എൻ്റെ പാരന്റ്സിനെ കൂട്ടീട്ട് അടുത്താഴ്ച വരാം ശരി ശരി ഓക്കെ സാർ ഞാൻ എന്നാൽ അടുത്താഴ്ച വന്നിട്ട് ജോയിൻ ചെയ്യാം താങ്ക് യൂ സാർ ശരി ശരി ശരി ശരി സാർ ഓക്കെ ഓക്കെ ഓക്കെ ആ ശരി ഞാൻ വിളിച്ചിട്ട് വരാം ശരി എന്നാൽ ശരി